ഇന്ത്യയിൽ പലതരം ലാൻ്റ്മാർക്കുകളുണ്ട് അതിനകത്ത് എന്നു പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് കുറച്ചെന്നു പറയുകയാണെങ്കിൽ ആഗ്രയിലുള്ള താജ്മഹൽ എന്നു വെച്ചാൽ ഈ സെവൻ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിലൊരു വണ്ടറാണ് താജ്മഹല് ഈ താജ്മഹാൽ ആഗ്രയിലിരിക്കുന്നു പിന്നെ അതല്ലാതെ പിന്നെ ഡൽഹിയിലാണ് റെഡ് ഫോർട്ടും ഒരു വലിയൊരു ലാൻ്റ്മാർക്കുതന്നെയാണ് ഇത് ഇത് മുഗൾ താമസിച്ചുകൊണ്ടിരുന്നൊരു ഫോർട്ടാണ് അതല്ലാതെ പിന്നെ രാജസ്ഥാൻ ജയ്പൂരിലെ പലതരം പാലസ്സുകളുണ്ടിന്ന് സിറ്റി പാലസ്സ് ഹവാ മഹൽ ഇതുപോലത്തെ ഇതുപോലത്തെ പാലസ്സുകളും രാജസ്ഥാൻ്റെ ഈ സ്ട്രക്ച്ചറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെയത് പിന്നെ വാരണാസിയിൽ നിന്ന് വാരാണാസിയിൽ നിന്ന് പറഞ്ഞ് ഉത്തർപ്രദേശിലൊരു ഒരു ഭയങ്കര പണ്ടത്തെയൊരു സിറ്റിയാണ് അതും ഒരു ഇന്ത്യയിൽ നല്ലത് വലിയ ലാൻ്റ്മാർക്കാണ് പിന്നെ അമൃത്സറിലുള്ള ഗോൾഡൻ ടെമ്പിൾ ഇതും ഇതൊരു സിഖ് ടെമ്പിളാണ് ഇത് ഇതും ഒരു ഇന്ത്യയിൽ വലിയൊരു ലാൻ്റ്മാർക്ക് തന്നെയാണ്